ഇന്ത്യയിലെ ഗതാഗത സംവിധാനം വളരെ വലുതാണ് എന്നാൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വേണ്ടത്ര വികസനങ്ങളോ അതിൻ്റെ സാധ്യതകളോ നാം പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് വളരെ സത്യമാണ് ഓരോ സംസ്ഥാനത്തിലും വ്യത്യസ്തമായ രീതിയിലുള്ള വികസനമാണ് നിയമങ്ങൾ പാലിക്കുന്നതിലും അതുപോലെ തന്നെ റോഡ് വികസനങ്ങൾ ഒന്നാമതായി റോഡ് വികസനം എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ റോഡ് വികസനങ്ങൾ പല സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമാണ് റോഡ് നിയമങ്ങൾ പാലിക്കുന്നത് അതുപോലെ ഗതാഗതങ്ങൾ ഓടിക്കുന്നതിലും അതുപോലെ അത് നിയന്ത്രിക്കുന്നതിലും ഒക്കെ വളരെ വ്യത്യസ്തമായ അനുഭവം കാണാറുണ്ട് രണ്ടാമതായിട്ട് നിയമങ്ങൾ പാലിക്കുന്നതിൽ ഇന്ത്യയിൽ വളരെ പിറകിലോട്ടാണ് അതിന് കർശനമായ നടപടികൾ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ കാര്യം തന്നെ അതായത് നിയമങ്ങൾ പാലിക്കാതെ ഇരിക്കുന്നതിലുള്ള ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് അതിന് കർശനമായ നിയമവ്യവസ്ഥകൾ നിയമവ്യവസ്ഥകളിലൂടെ അവർ അത് ബോധവൽക്കരിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെത്തന്നെ നഗരങ്ങളുടെ മന്ദഗതിയിലുള്ള വികസനം ഈ ഗതാഗത സംവിധാനത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് റോഡ് സേഫ്റ്റിയൊക്കെയാണ് സുരക്ഷിതമല്ലാത്ത സംവിധാനത്തിലുള്ള വീഴ്ച്ച റോഡ് സേഫ്റ്റി അത് വളരെയധികം അപകടങ്ങൾ വിളിച്ച് വരുത്തുന്നു അതുപോലെത്തന്നെ ഗതാഗതം സംവിധാനങ്ങളെ നേരായ ദിശയിലൂടെ അത് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല അതുപോലെത്തന്നെ പുതിയ നിയമങ്ങൾ പുതിയ നിയമ സംവിധാനങ്ങൾ ഇതിലുണ്ടാകുന്ന അത് നടപ്പിലാക്കുന്നതിലുള്ള കാല താമസം വളരെ വലുതാണ് മറ്റ് രാജ്യങ്ങളിലൊക്കെയാണങ്കിൽ അത് നേരത്തെ തന്നെ അങ്ങനെയുള്ള പുതിയ വികാസ വികസനങ്ങൾ പുതിയ സംവിധാനങ്ങളൊക്കെ അത് പാലിച്ചിട്ടുണ്ട് അത്പോലെ റോഡ് സേഫ്റ്റിസ് നിയമങ്ങൾ അപ്പോൾ അനുവർത്തിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ നിയമങ്ങളിലും അതുപോലെത്തന്നെ അത് പാലിക്കുന്നതിനും ഉള്ള വളരെ അധികം വീഴ്ച വന്നിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തിലായാൽ പോലും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ വളരെ അധികം പ്രയോജനമുള്ളതായി വരുന്നുണ്ട് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അത് അതിൻ്റെ ഒരു അമ്പത് ശതമാനം പോലും വികസനങ്ങളോ മറ്റ് കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല അതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലെ ഗതാഗത സംവിധാനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ അത് ജനങ്ങളെ ബോധവത്ക്കരിക്കാനുള്ള ഒരു കാലതാമസം നിയമങ്ങളെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഗതാഗതം എത്രത്തോളം സുരക്ഷിതമായി ഗതാഗത സംവിധാനം നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ള ബോധ്യം ജനങ്ങളിലേക്കെത്തിക്കുന്നതിൽ ഗവണ്മെൻറ്റിൻ്റെ പരാജയം അത് വളരെയധികം ചൂണ്ടി കാണിക്കുന്നതാണ് നമ്മൾ പത്ര മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ നമ്മളുടെ വിദ്യാഭ്യാസ രീതിയിൽ വിദ്യാഭ്യാസ കാലയളവിൽ തന്നെ ഈ നിയമങ്ങളെ പാലിച്ച് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് ജനങ്ങളിലൊരു ബോധവൽക്കരണം ഉണ്ടാകും അതുപോലെ തന്നെ അവരുടെ ജീവിത രീതിയിൽ തന്നെ ഒരു മാറ്റമുണ്ടാകും ഇതൊക്കെയും ഗതാഗത സംവിധാനത്തിൽ വരുന്ന വെല്ലുവിളികളാണ് ഇതൊക്കെയും മുന്നോട്ട് ഉൾക്കൊണ്ട് കൊണ്ട് വരുംനാളുകളിൽ അത് വികസനങ്ങളെ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ അത് വളരെ പ്രയോജനമാകും ഇനിയുള്ള നാളുകളിലും നല്ല രീതിയിൽ ഗതാഗത സംവിധാനങ്ങൾ മുന്നോട്ട് പോകുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു